നമുക്ക് താൽപ്പര്യം തോന്നിയിട്ടുള്ള ഒരു സമകാലിക സംഭവത്തിനെക്കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ കൊറോണ കാലം തന്നെയാണ് കൊറോണ കാലത്ത് മാസങ്ങളോളം ലോക്ക്ഡൌൺ ആയിട്ട് വീട്ടിനുള്ളിൽ തന്നെ നിൽക്കേണ്ടി വന്ന ആ അവസ്ഥ അത് ഭയങ്കരം തന്നെയാണ് നമ്മൾ പുറത്തുള്ള ആളുകളെ ഒന്നും കാണാണ്ട് വീട്ടിനുള്ളിൽ വീട്ടിലുള്ള ആളെ മാത്രം കണ്ടിട്ട് ഇന്നൊരു സംഭവമായിരുന്നു അത് നമുക്ക് ഇപ്പം വീട്ടിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങാൻ പോലും പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയേനു അന്നേരം അതിന് അതിന് വരെ നമ്മൾ വേറെ ആൾ വീട്ടിൽ സാധനം എത്തിച്ച് തരുന്ന ഒരു അവസ്ഥയേനു അപ്പം അയ അത് ഒരിക്കൽ നമുക്ക് മറക്കാൻ പറ്റില്ല പിന്നെ എനിക്ക് കൊറോണ വന്നിട്ടുണ്ടേനു കൊറോണ വന്നപ്പം നമ്മൾ വീട്ടിലുള്ള ആളെ തന്നെ ഒരു റൂമിൽ ഇരുന്നിട്ട് വീട്ടിലുള്ള ആൾക്കാരെ വരെ മര്യാദയ്ക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയേനു പിന്നെ കൊറോണ വന്നതിന് ശേഷം എന്താണ് പറയേണ്ടത് എല്ലാവർക്കും പിന്നെ കൊറോണ വന്ന ആൾക്കാർക്ക് ഇപ്പോൾ ആരോഗ്യപ്രശ്നങ്ങളും ഓരോ തരത്തിലുള്ള അസുഖങ്ങളായിട്ട് വരുന്നുണ്ട് വാക്സിൻ എടുത്തതിന് ശേഷം പിന്നെ അതുപോലെ തന്നെയാണ് എല്ലാ ആളുകൾക്കും ഓരോ പ്രശ്നങ്ങളുണ്ട് ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളായിട്ട് പറയുന്നത് കേൾക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് പറയേണ്ടത് ഒരിക്കൽ മറക്കാൻ പറ്റില്ല ഒരു ഭയങ്കര ഒരു സംഭവമായിട്ട് തന്നെ ഇങ്ങനെ എപ്പോഴും മനസ്സിൽ ഉണ്ടാവും ഒരിക്കൽ ഒരു കാലമായാലും അത് നമുക്ക് മറക്കാൻ പറ്റത്തില്ല